ഞാൻ ഡിഗ്രി കഴിഞ്ഞൊരാളാണ് അപ്പം ഞാൻ ഈ സ്കൂൾ പഠിക്കുമ്പം തൊട്ടെനിക്ക് തയ്യൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ തയ്യൽ പഠിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ആ ഒരിഷ്ടം കൊണ്ട് വീട്ടിലൊരു മെഷീനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്വന്തമായിട്ട് അങ്ങനെ ഇഷ്ടത്തിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് അപ്പം തയ്ക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ആ ഒരിഷ്ടം കൊണ്ട് ഞാൻ സ്വയം കുറച്ച് കാര്യങ്ങളൊക്കെ തയ്ക്കാനൊക്കെ പഠിച്ചു അപ്പം ആദ്യമൊക്കെ എൻ്റെ സ്വന്തം ആവശ്യത്തിനും എൻ്റമ്മയ്ക്ക് ഒക്കെയാണ് ഞാൻ തയ്ക്കാനൊക്കെ തുടങ്ങിയത് പിന്നെ കുറച്ചും കൂടെ അത് എന്താ പറയുക തയ്ക്കാനൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പം വീടിനടുത്തുള്ളവർക്കും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അത് ഇതിനോടുള്ളൊരു താൽപ്പര്യം കൊണ്ടങ്ങനെ തുടങ്ങിയതാണ് അപ്പം ഫസ്റ്റ് ഈ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ ആണിങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പം സ്കൂളിൽ ഡസ്റ്ററ് തയ്ച്ച് കൊടുക്കുകയും അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് കാരണം തയ്യൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് പിന്നീട് ഇതിനോടുള്ളൊരു താൽപ്പര്യം കൊണ്ട് ഞാനങ്ങനെ വീടിനടുത്തുള്ളവർക്ക് തയ്ച്ചൊക്ക കൊടുക്കാറുണ്ട് ഇപ്പം ഇപ്പോഴും ഞാനങ്ങനെ അതിനോടുള്ളൊരു ഇഷ്ടം കാരണം തയ്ച്ച് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെയൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് നമ്മൾ സിറ്റിയിൽ വാങ്ങിക്കുന്നത്രയും ക്യാഷൊന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം സാധാരണ അവർ തയ്യൽ കടയിലൊക്കെ എത്രയാണോ കൊടുക്കുന്നത് ആ ഒരു റേയ്റ്റാണ് എനിക്ക് തരാറുള്ളത് ഞാൻ അങ്ങനെ ഇത്ര ഇതെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് വാങ്ങിക്കാറൊന്നുമില്ല അപ്പം അതെനിക്കൊരു സന്തോഷമാണ് ഈ തയ്യൽ കൊണ്ട് ഭയങ്കര സന്തോഷമാണ് അപ്പം ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ചുരിദാർ ഫ്രോക്ക് പാൻ്റ് അതൊക്കെയാണ് ഞാൻ തയ്ക്കാറുള്ളത് അപ്പം ന്യായമായിട്ടുള്ള വിലയാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കാറുള്ളത്